അജിത്തിൻ്റെ ഫാ പാരന്റ് അല്ലേ ആ ഞാൻ അവൻ്റെ ക്ലാസ് ടീച്ചർ ആണേ ആ ഒരു കഴിഞ്ഞ ആഴ്ച്ച ഞങ്ങൾ ക്ലാസ്സിൽ ഒരു യൂണിറ്റ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നേ സോ അതിൽ ഏകദേശം എല്ലാ കു എല്ലാ സ്റ്റുഡന്റ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നിങ്ങളുടെ മകനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവന് ക്ലാസ്സിൽ ഏറ്റവും കുറവ് മാർക്ക് അവനാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അവൻ അത് എന്തെങ്കിലും വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞങ്ങൾ ചോദിച്ച സമയത്ത് അവൻ വീട്ടിൽ പറഞ്ഞു അപ്പം അച്ഛൻ ഒന്നും പറഞ്ഞില്ലാന്ന് ഒക്കെ ആണ് പറഞ്ഞത് സോ അതിനെ പറ്റി ഒന്ന് എൻക്വയറി ചെയ്യാൻ വേണ്ടി വിളിച്ചത് ആയിരുന്നു

ആണോ പക്ഷേ ഞങ്ങൾ ഞാൻ ഇന്നും കൂടി രാവിലെ ചോദിച്ചതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് മാർക്ക് കുറവായതുകൊണ്ട് ആ ആൻസർ പേപ്പറിൽ ഒന്ന് പാരന്റ് സൈൻ ചെയ്ത് കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യിപ്പിച്ച് കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആളോട് ചോദിച്ച സമയത്ത് ഇന്ന് ഇന്നും കൂടി രാവിലെ ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞതുണ്ടെങ്കിൽ അവൻ്റെ പാരന്റ് അതായത് നിങ്ങൾ സ്ഥലത്ത് ഇല്ല എവിടെയോ പോയിരിക്കുകയാണ് സോ വന്നതിന് ശേഷം ഒപ്പിട്ടുകൊണ്ട് വരാം എന്ന് ഒക്കെയാണ് അവൻ പറഞ്ഞത് അപ്പം എനിക്ക് എന്തോ ഒരു കള്ളത്തരം അതിൽ ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ നമ്പർ എടുത്ത് നിങ്ങളിലേക്ക് വിളിച്ചത്

ഓക്കെ എൻ്റെ നമ്പർ അപ്പം നിങ്ങൾക്ക് അവൻ തന്നിട്ടില്ലായിരുന്നോ അതായത് ക്ലാസ് ടീച്ചറിൻ്റെ നമ്പർ തന്നിട്ടില്ലായിരുന്നോ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പം ഇങ്ങനെ ക്ലാസ് എടുക്കിന്നില്ല അപ്പം എന്തായാലും ടീച്ചേഴ്സ് ക്ലാസ് സ്കൂളിൽ വരുന്നത് അവരെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ സോ അവൻ ഇങ്ങന തന്നെ റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നില്ല ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുവാണ് വർത്തമാനം പറഞ്ഞ് ഇരിക്കുവാണെന്ന് ഒക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് അതിനുള്ളിൽ ഒന്ന് ബോതേർഡ് ആവണം കാരണം സ്റ്റുഡന്റ്സ് ആണ് അവർ അതിന് അനുസരിച്ചുള്ള ഉഴപ്പുകളും കാര്യങ്ങളൊക്കെ കാണിക്കും എങ്കിലും സ്റ്റുഡൻറ്റ് പാരൻറ്റ്സ് എന്നുള്ളൊരു ബാ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ബോതേർഡ് ആവണം എന്നാണ് ഞാൻ പറയുള്ളൂ അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആണെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ മതി കാരണം എല്ലാ ദിവസവും ഈ ടീച്ചേഴ്സ് വന്നിട്ട് ഇങ്ങന അവരോട് വർത്താനം പറഞ്ഞോ അല്ലെങ്കിൽ അവരോട് കളിച്ചോളാൻ പറഞ്ഞിട്ട് ഇരിക്കില്ലല്ലോ ഇപ്പം അത് ഇപ്പം ആണല്ലേ ഓക്കെ ഓക്കെ അപ്പം എനിക്ക് തോന്നി അതായത് ആൾ ഇങ്ങനെ എന്താണ് പറയുക ചോദിക്കുന്ന സമയത്ത് ഒന്ന് ഉരുണ്ട് കളിക്കുന്ന സമയത്ത് എനിക്കും ഫീൽ ചെയ്തു ആൾ നുണ പറയുന്നത് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ ഇപ്പം നമ്പർ കളക്റ്റ് ചെയ്ത് അങ്ങനെ കോൾ ചെയ്തത് മാത്രമല്ല പാര പാരൻറ്റ്സ് മീറ്റിംഗ് ഞങ്ങൾ കഴിഞ്ഞ മാസം ഒരു പാരൻറ്റ്സ് മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു ജനറൽ ബോഡി വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തും അജിത്തിൻ്റെ പാരൻറ്റ് മാത്രം എത്തിയില്ല അപ്പം ഞാൻ ചോദിച്ചു ആളോട് ചോദിച്ചു എന്താണ് പാരൻറ്റ് വരാത്തതെന്ന് ചോദിച്ച സമയത്ത് അന്ന് എന്തോ തിരക്കിൽ ആണെന്നാണ് അവൻ പറഞ്ഞത് അപ്പം ഞാൻ അത് ആ ഒരു രീതിയിൽ അങ്ങ് വിട്ടു അപ്പം എന്തായാലും ഇപ്പം ഈ ക്ലാസ് ടെസ്റ്റും കൂടി നടന്ന് കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് എനിക്ക് ഒന്ന് വിളിച്ച് പറയണം തോന്നി അങ്ങനെ ആണ് വിളിച്ചത് അപ്പം കുറച്ചും കൂടി ഒന്ന് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ആക്റ്റീവ് ആകണം അതായത് ഒരു ആസ് എ പാരന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ്റെ കാര്യത്തിൽ ഒന്നും കൂടി ഒന്ന് ബോതെ ബോതേർഡ് ആവണം അതേപോലെ പറ്റുന്നുണ്ടെങ്കിൽ നാളെത്തന്നെ ഒന്ന് ക്ലാസ്സിലേക്ക് വന്ന് അവനെയും കൂട്ടിക്കൊണ്ട് ക്ലാസ്സിലേക്ക് വന്ന് എന്നെ ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ശരി ശരി ശരി ഓക്കെ